എനിക്ക് നൃത്തത്തെ സംബന്ധിച്ച് വളരെയധികം സ്വപ്നങ്ങൾ ഉണ്ട് എനിക്ക് കഥകളി പഠിച്ച് വലിയ ഒരാൾ ആവണമെന്ന് താൽപ്പര്യമുണ്ട് കഥകളിയിൽ എനിക്ക് എല്ലാം വളരെ ഇഷ്ടമാണ് കഥകളി എല്ലാം കഥകളിയുടെ ശൈലി ഒരു വ്യത്യസ്ത ശൈലിയാണ് മറ്റു കലാരൂപങ്ങളെ സംബന്ധിച്ചും മറ്റ് നൃത്ത രീതികളെ സംബന്ധിച്ചും എനിക്ക് കഥകളിയിലെ ചുവടുകൾ വളരെ ഇഷ്ടമാണ് നൃത്തത്തെ സംബന്ധിച്ച് ചില മോഡേൺ നൃത്തങ്ങൾ എനിക്ക് വളരെ ഇഷ്ടമാണ് അത് പഠിക്കാൻ ഞാൻ ട്രൈ ചെയ്യാറുണ്ട് നൃത്തം എന്നും വളരെ നല്ലതാണ് സമൂഹത്തിൽ വിലയും മനുഷ്യന് സന്തോഷവും സമാധാനവും എല്ലാം നൃത്തം തരുന്നു ഇതുകൊണ്ട് കുട്ടികൾക്ക് നൃത്തം പഠിക്കുന്നതിന് ഒരു വിഷയവും പ്രശ്നവും

നൃത്തം പഠിക്കുന്നതിനാൽ നമ്മുക്കൊരു സ്റ്റേജ് ഷോ വന്നാൽപ്പോലും അവിടെ കയറി നൃത്തം ചെയ്യാനും ഒരു മടിയും ഇല്ലാതെ മൈക്കിൽ സംസാരിച്ച് പാട്ടുകൾ പാടിയും മറ്റും നൃത്തം ചെയ്യാനും നമുക്ക് സാധിക്കും പുതിയ രീതിയിൽ പുതിയ കാലഘട്ടത്തിൽ മോഡേൺ നൃത്തരീതികൾ ഉണ്ട് പണ്ടുകാലങ്ങളിൽ നൃത്തം എല്ലാവരും സ്റ്റേജിലും അവിടെ എല്ലായിടത്തും കാണിക്കും അത് കാണാൻ കുറേ ആളുകൾ വരുമായിരുന്നു ഇപ്പോഴും അതേപോലെ ഒക്കെത്തന്നെയാണ് സമൂഹത്തിൽ നിലയും വിലയും മനുഷ്യന് സന്തോഷവും സമൂഹത്തിൽ ജനങ്ങളുടെ സന്തോഷം ഉറപ്പുവരുത്താനും നൃത്തരൂപങ്ങളും കലാരൂപങ്ങളും എല്ലാം വളരെ പ്രയോജനമാണ്